ഇവിടുത്തെ ഏറ്റവും ഫേമസ് വിനോദസഞ്ചാരമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിംഗാണ് അതൊരു ഇപ്പോൾ പുറത്തു നിന്നു വരുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള പുറം പുറം ജാതി ജില്ലകൾക്കൊക്കെ ആണെങ്കിലും ഇവിടുത്തെ കാണാൻ വലിയൊരു ക്യൂരിയോസിറ്റി ആണ് ആണ് ഹൗസ് ബോട്ടിംഗ് അവിടെ ഇപ്പം ഫിഷിങ് ഹണ്ടിങ് കര കാണണം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായതു കൊണ്ട് പുറത്തു നിന്നു വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ കൂടുതലും ഞങ്ങൾക്കൊരു ഹൗസ് ബോട്ടിംഗ് കാര്യത്തിനോടാണ് കൂടുതൽ താത്പര്യം കാരണം ചുറ്റും എന്നാൽ ഫുള്ളും വാട്ടർ ഇൻഫ്ലോയാണ് അപ്പം അതുകൊണ്ടവർക്ക് കൂടുതലും താത്പര്യം ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കാനായിരിക്കും